ഏതൊരു ചെറുപ്പക്കാർക്കും ഉള്ളതുപോലെതന്നെ എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വണ്ടിയെടുക്കണം വേൾഡ് ടൂർ നടത്തണം അതിൻ്റെ വീഡിയോസ് എടുക്കണം പോസ്റ്റെയ്യണം ഫെയ്മസ് ആവണം എന്നൊക്കെ അങ്ങനെ വണ്ടി എടുക്കാനുള്ള ആദ്യ പടിയിലേക്ക് ഞാനിങ്ങനെ വണ്ടി അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നു യൂസ്ഡ് വെഹിക്കിൾ ഒക്കെ ഒരുപാട് നോക്കി ഒന്നും നടന്നില്ല നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ ഡൗൺ പേയ്മെൻ്റിന് ഒരു വണ്ടിയും ലഭിച്ചില്ല അങ്ങനെ ആഗ്രഹം നടക്കൂല്ല നടക്കൂല്ല എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് പെട്ടന്ന് ഞാനിങ്ങനെ പുതിയ വണ്ടികൾക്ക് വേണ്ടി എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ വഴി എൻക്വയറി ചെയ്തു അങ്ങനെ റോയൽ എൻഫീൽഡിനെ തന്നെ വിളിച്ചു റോയൽ എൻഫീൽഡിൽ നിന്നെന്നെ വിളിച്ചു അവരോട് സംസാരിച്ചു ഞാനവരെ നേരിട്ട് പോയി വിസിറ്റെയ്തു ഞാനുദ്ദേശിച്ച ഡൗൺ പേയ്മെൻ്റിന് എനിക്ക് വണ്ടി ഇറങ്ങുമെന്ന് മനസിലായി വളരെ സന്തോഷമായിരുന്നു കാരണം നമ്മള് എല്ലാം മടക്കി കെട്ടി പൂട്ടി വെച്ച് വേറെ പണി നോക്കാം എന്നുള്ള രീതിക്ക് നിന്നപ്പോൾ അവിസ്മരണീയമായിട്ടുതന്നെ എൻഫീൽഡിൽ നിന്നു വിളിക്കുന്നു നമ്മളുദ്ദേശിച്ച ഡൗൺ പേയ്മെൻ്റിനു വണ്ടി ഇറങ്ങുന്നു ഓഫർ കിട്ടുന്നു ഞാൻ വണ്ടി എടുത്തു ഞാൻ എൻ്റെ ഒരാഗ്രഹം ഞാൻ സാധീകരിച്ചു